ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി മൂന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ആറ് നാല് നാല് രണ്ടായിരത്തി ഒൻപത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ച്